മതപരമായ ആചാരമായി ബന്ധപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പോകുന്നുണ്ടായിരുന്ന പൂരക്കളി എനിക്ക് ഓർമ്മ വരുന്നു അതിലുള്ള ചില പാട്ടുകൾ ഭയങ്കര മനോഹരമാണ് അത് ഒരാൾ പാടും ബാക്കിയുള്ള കളിക്കുന്ന ബാക്കി പത്ത് ഇരുപതോളം ആൾക്കാരുണ്ട് ഇവരെല്ലാവരും അത് ഏറ്റ് പാടും അതിന് താളം വയ്ക്കും അതിൻ്റെ കൂടെ അവർ ചാടിക്കളിക്കുന്ന ഇതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും അതുപോലെ തന്നെ കേൾവിക്കും സുഖം തരുന്നൊരു സംഭവങ്ങളാണ് നിലവിൽ ഞാൻ പൂരക്കളിയൊന്നും കളിക്കാറില്ലെങ്കിലും ഞാൻ കാണാൻ പോവാറുണ്ട് കാരണം അത്രയും ഒരു ഭയങ്കര ഒരു മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു കല രൂപമാണത് കല വെറും കലയല്ല അതായത് ഒരനുഷ്ഠാനകല എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മാത്രമേ ഈ പൂരക്കളി എന്ന് പറയുന്നൊരു കലാരൂപമുള്ളൂ മാത്രമല്ല വളരെ മനോഹരമായ ഒരു കല കൂടിയാണെന്ന് ഞാൻ പറയാം അതിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ചുവപ്പും ചൊറയും എന്നാണ് അതിന് പറയുന്നത് ചുവപ്പും ചൊറയും അത് കെട്ടി പൂരം പൂരം കൊടിയേറുന്ന നാൾ അമ്പലത്തിനകത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി കളിക്കുന്ന ഒരു മനോഹരമായൊരു കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് അതിപ്പോഴും ഉണ്ട് മുമ്പും ഉണ്ട് വളരെ മനോഹരമായ കുറേ പാട്ടുകളും ഒന്നൊന്നുമല്ല ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള കളികൾ അത് കഴിഞ്ഞ് രാമായണ ക കഥ പറയുന്ന കളി പിന്നെ താളം പാട്ടുകൾ അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഇതൊക്കെ വളരെ സുന്ദരവും മനോഹരവുമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു എട്ട് എട്ട് വയ് എട്ടാം ക്ലാസ്സ് വരെ ഈ പൂരക്കളി കളി കളിക്കാൻ പോകാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തൊട്ട് ചെറു ഈ പാട്ടും ഞാൻ പാടുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ശബ്ദം അത്ര മനോഹരമായിട്ടുള്ള ഒരു ശബ്ദമല്ല അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സ് ഒന്നും രണ്ടാം ക്ലാസ്സ് എന്നൊക്കെ പാടുന്നുണ്ടായ ഞാൻ പിന്നീട് പാട്ട് നിർത്തുകയായിരുന്നു പിന്നീട് എൻ്റെ ഏട്ടൻ ഏട്ടൻ കുറേ നാൾ പാടുന്നുണ്ടായിരുന്നു അവനെ പണിക്കറാ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളെയാണ് പണിക്കർ എന്ന് പറയുന്നത് പണിക്കർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് തീരുമാനിച്ച് വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവൻ വേണ്ട എന്ന് പറഞ്ഞ് അത് മാറുകയായിരുന്നു എട്ടാം ക്ലാസ്സ് കഴിഞ്ഞ് എനിക്ക് പിന്നെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിരുന്നു അത് എട്ടാം ക്ലാസ്സ് കഴിഞ്ഞ് പിന്നീട് എനിക്ക് വലിയ താൽപ്പര്യം അങ്ങോട്ട് പോവണം എന്ന് തോന്നിയില്ല പക്ഷേ ഇത് കാണാൻ എനിക്ക് താൽപ്പര്യം ഉണ്ട് ഇത് ഈ പാട്ട് മുറുകുന്നതും ഈ കളി മുറുകുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ് പക്ഷേ പിന്നീട് എനിക്കത് കളിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല